ചായ തണുത്തു പോയി പിന്നെ നിങ്ങൾ കഴിഞ്ഞാഴ്ച്ച അനിയത്തീൻ്റെ കല്യാണത്തിന് സ്വർണ്ണവും മുണ്ടൊക്കെ എവിടെ നിന്നാണ് എടുത്തത് ഡ്രെസ്സൊക്കെ

ആ നമുക്ക് ബന്ധുക്കാർക്കുള്ള ഡ്രെസ്സൊക്കെ കിട്ടുമോ എല്ലാവർക്കും ഉള്ളത് അതേ ഈ റോഡിൽ നിന്നൊക്കെ എടുക്കുന്നുയെന്ന് പറയുന്ന കേട്ടു ആ അതെയല്ലെ കോയമ്പത്തൂരിലേക്കോ ആ നമുക്ക് വേറെ ബന്ധക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും മറ്റേ കുട്ടികൾക്കും മറ്റേ മറ്റവർക്കും അവർക്കും ഏട്ടന്മാർക്കൊക്കെ മുണ്ടും ഷർട്ടുമൊക്കെ എടുക്കണം എല്ലാം അവിടെ കിട്ടുമോ

ആ അവിടെയൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത് ആ മറ്റേ ആ കല്യാണ സാരിക്കെത്രയായി അത്രയേ ആയിട്ടുള്ളു അല്ലേ നല്ല നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയായിരുന്നു കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അതെപ്പോഴാണാവുക ആ ആ അപ്പോൾ അവിടെനിന്ന് പോകുവാനാരും ഇല്ല അപ്പോൾ ഞാനിതെങ്ങനെ പോവേണ്ടത് എന്ന് പിടിത്തമില്ല എവടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല അപ്പോൾ പിള്ളാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഈ റോഡ് പറഞ്ഞു അപ്പോഴാണ് ഓർമ്മ വന്നത് ചേച്ചീൻ്റെ പേര് ഗോൾഡ് എവിടെ നിന്നാണ് എടുത്തത്

ആ നമുക്കെന്തൊക്കെ എടുക്കേണ്ടി വരും ഇപ്പോൾ

അതാണ് ചോദിച്ചത് ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ പിടിത്തമൊന്നുമില്ല അവൾക്കാണെങ്കിൽ അവൾ നീ എന്തൊക്കെയോ എടുത്തോയെന്നു പറഞ്ഞു

ആ അത് ഇത്രയേ വേണ്ടൂ നാലെണ്ണമേ വേണ്ടൂ പന്ത്രണ്ട് വളയോ ഒരു കൈയ്യിൽ ആറു വളയൊക്കെ വേണോ രണ്ടു വള പോരേ എന്തിനിത്രയൊക്കെ വള അയ്യയ്യേ അപ്പോൾ എത്ര പൈസയായി ഗോൾഡിനെത്ര പൈസയായി എത്ര എത്ര ഇരുപത്തഞ്ച് ലക്ഷമോ ഇതെന്താണിത് ആ അതു ശരിയാണ് ആ അപ്പോൾ കുഴപ്പമില്ല ഇതിപ്പോൾ അവളൊന്നും എടുക്കില്ല അപ്പോൾ ഞാൻ തന്നെയാണെടുക്കുന്നത് സീനാണ് പണ്ടൊക്കെ

ആ കുഴപ്പമില്ല ഇപ്പോൾ സ്വർണ്ണം വന്നിട്ട് കല്യാണത്തിന് പോവാമല്ലേ അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേ മാലയും വളയും മോതിരവും പിന്നെയെന്താ പറഞ്ഞേ പാദസരവും കമ്മലല്ലേ ആ കമ്മലൊക്കെ പിന്നെ ഒരു സെറ്റ് പോരേ അതു രണ്ടെണം വേണോ എന്നാ ശരി രണ്ടെണ്ണം എടുക്കാം മാല പിന്നെ താലി മാത്രമാണോ അതോ വേറെയെന്തെങ്കിലും വേണോ ഓ താലി അവരെടുക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മളെന്താണ് എടുക്കേണ്ടത്

നെക്ലെയ്സോ ആ പിന്നെന്താ എടുക്കുന്നത് ഷോ മാലയോ അതെന്ത് സാധനം ആ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ആ അപ്പോൾ എല്ലാം കൂടി ഒരു പത്ത് അമ്പത് ലക്ഷം ഉറുപ്പിക വേണ്ടി വരുമല്ലേ ഇപ്പോൾ ആ ശരി കുഴപ്പമില്ല ഞാൻ ചേച്ചിയെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഇന്നൊന്നും പോവില്ല എന്താ വേറെയെന്തെങ്കിലും രണ്ടിവസം കഴിഞ്ഞിട്ട് പോകണം ചേച്ചി ഫ്രീയാണെങ്കിൽ വരൂ നമുക്ക് ഒരുമിച്ച് പോകാം